ഹലോ സർ പറയൂ ഓക്കെ സർ സെവൻ സീറ്റാണൊ ഫൈവ് സീറ്റാണോ സർ വേണ്ടത് സെവെൻ സീറ്റ് ഇന്നോവ മതിയോ ഓക്കെ സർ ഇന്നോവയാവുമ്പോൾ എത്ര ദിവസത്തെ ട്രിപ്പാണ് സർ ഉദ്ദേശിക്കുന്നത് വൺ വീക്ക് ആവുമ്പോഴൊരു എണ്ണപ്പൈസ ഒരു അയ്യായിറുപ്പ്യ ആവും ട്രിപ്പെല്ലാം കൂടി ഫുഡ്ഡ് സൗകര്യം നിങ്ങളൊരുക്കുന്നുണ്ടോ നമ്മൾ പോണസമയത്ത് ഹോട്ടൽ നിന്നായിരിക്കും ഹോട്ടലിൽനിന്ന് ആയിരിക്കും അല്ലെങ്കിൽ വേറെ വണ്ടി അതിനായിട്ട് ഉണ്ട് ആ വണ്ടിക്ക് ഇരുപതിനായിറുപ്പ്യ ആണ് വരുന്നത് റേറ്റ് ഫുഡ്ഡടക്കം ലാസ്റ്റ്ന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് വരെ വരും മെനുവെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കും ആ അതുതന്നെ ആ എല്ലം അങ്ങനെയാണ് ഇരുപതിനായിറുപ്പ്യ പറഞ്ഞത് അതിൻ്റെ എണ്ണപ്പയിസ അടക്കമാണ് പറഞ്ഞത് ആ ലഞ്ച് എല്ലാം ഉണ്ടാവും താമസസൗകര്യം നിങ്ങൾ ഏത് പ്ലേസ് ആണ് വിചാരിക്കുന്നത് അവിടെ പോയിട്ട് അവിടെ ഹോട്ടലുണ്ട് ആ ഹോട്ടലായിരിക്കും ഊട്ടി ഊട്ടി കാസർഗോഡ് ഗോവ അവിടെയൊക്കെ പോയി കവർ ചെയ്യാൻ പറ്റും റിസോർട്ട് ആയിരിക്കും

എ സി റൂമായിരിക്കും ടി വി ഉണ്ടാവും ആ എല്ലാമുണ്ടാവും എല്ലാം ഒതുക്കും ഊട്ടി ആ മെയിനായിട്ടുള്ള സ്ഥലമാണ് ഉദ്ദേശിച്ച്ത്